ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്കൂളുകളെല്ലാം തന്നെ പല തരത്തിലുള്ള നിലവാരത്തിലുള്ള സ്കൂളുകളായിരിക്കും അതായത് പല തരത്തിലുള്ള പ്രത്യേകതകള് സ്കൂളുകള്ക്കുണ്ടാകും അതായത് പല ഇപ്പോൾ ഗവണ്മെന്റ് സ്കൂളുകള് മാത്രവല്ല ഇന്നത്തെ ഇതിൽ ഉള്ളത് ഇന്നിപ്പോൾ നമുക്ക് എയ്ഡഡ് സ്കൂളുകള് അണ് എയ്ഡഡ് സ്കൂളുകള് അല്ലെങ്കിൽ മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം അങ്ങനെ എല്ലാം പല തരത്തിലല്ലെങ്കില് ഇന്റെര്നാഷ്ണല് സ്കൂളുകള് പല തരത്തിലുള്ള സ്കൂള് സ്കൂള്കളെല്ലാം വരുന്നുണ്ട് അപ്പോൾ സ്കൂളുകളിലെല്ലാം എല്ലായിടത്തും പല തരത്തിലും പല പല തരത്തിലുള്ള പഠന ശൈലികളും അല്ലെങ്കില് ഇപ്പോൾ എന്റെ പ്രദേശത്തുള്ള സ്കൂളിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രദേശത്തെ സ്കൂളുകളും അല്ലെങ്കില് വലിയ നഗരങ്ങളിലെ സ്കൂളുകളാണോ ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ച് കഴിഞ്ഞാല് എന്നെ സംബന്ധിച്ച് പറയുകയാണെൽ ഞാന് പറയും വലിയ നഗരങ്ങളിലെ സ്കൂളുകള് തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് തന്നെ അഭിപ്രായം ഉള്ള ഒരാളാണ് ഞാന് അപ്പോൾ നമ്മുടെ നഗരങ്ങളിലെ സ്കൂള് അല്ലെങ്കിൽ വലിയ നഗരങ്ങളിലെ സ്കൂളുകളെന്നത് കൊണ്ടുദേശിക്കുമ്പോൾ നമുക്ക് പല തരത്തിലുള്ള അതായത് ഉണ്ടാകുന്ന പല ബെനിഫിറ്റ്സ് അതായത് സ്കൂളിൽ വിട്ട് കഴിയുമ്പം നമ്മളെ കുട്ടികള്ക്കുണ്ടാവുന്ന പല തരം ബെനിഫിറ്റ്സ്കള് പലതാണ് അതായത് നമുക്ക് കുട്ടികളെ അവരുടെ പഠനത്തിലുണ്ടാവുന്ന ഡെവലപ്പ്മെന്റ്സ് അവരുടെ എന്താ ബാക്കി ഉള്ള കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ഡെവലപ്പ്മെന്റ്സ് അല്ലെങ്കിൽ അവരുടെ ഡിസിപ്ലിനിൽ ഉണ്ടാകുന്ന കാര്യങ്ങള് അല്ലെങ്കില് അവര് പലതും പഠിക്കുന്നത് ഇപ്പോൾ ഒരു സ്കൂളില് അല്ലെങ്കിൽ ഇപ്പം എന്റെ പ്രദേശത്തുള്ള സ്കൂളില് പഠിക്കുന്നത് പോലായിരിക്കും ഇപ്പം സ്കൂളിലെ പഠിപ്പ് പോലെ ആയിരിക്കത്തില്ല വലിയ നഗരങ്ങളിലെ പോലെ സ്കൂളുകളിലും അല്ലെങ്കിൽ കുറച്ച് കൂടെ ലക്ഷൊറീസായിട്ടുള്ള സ്കൂളുകളിലും ഒക്കെ ഉണ്ടാകുന്ന പഠന രീതികളും അല്ലെങ്കിൽ കുട്ടികള്ക്ക് ഉണ്ടാകുന്ന ആ ഒരു ഡിസിപ്ലിനും കാര്യങ്ങളും ഇതെല്ലാം എന്റയര്ലി ഡിഫ്രന്റ്റായിരിക്കും പല സ്കൂളുകളും എല്ലാ സ്കൂളുകളും ഒരുപോലെതന്നെ ആകത്തില്ലല്ലോ അപ്പോൾ പല സ്കൂളുകളിലും പല തരത്തിലാണ് ഇപ്പം അതുകൊണ്ട് തന്നെ എന്റെ പ്രദേശത്തുള്ള സ്കൂളുകള് മോശവാണന്നോ അല്ലെങ്കില് വലിയ നഗരങ്ങളിലെ സ്കൂളുകളാണ് ഏറ്റവും നല്ലതെന്നോ അങ്ങനല്ല ഈ ഞാന് ഞാനെന്ന് പറയുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചെടത്തോളം നഗരങ്ങളിലെ സ്കൂളുകളെയാണ് വലിയ നഗരങ്ങളിലെ വലിയ സ്കൂളുകളെയാണ് ഞാന് കൂടുതലും ഇഷ്ടപ്പെടുന്നത് കാരണം ഇപ്പോൾ ഈയൊരു പുതിയ തലമുറയില് നമ്മുടെ പുതിയ തലമുറയിലെ ഈ ഓള്മോസ്ട് എല്ലാ കുട്ടികളും അവരവരുടേതായ രീതിയില് പല കഴിവുകളും ഉള്ള കുട്ടികള് തന്നെയാണ് അപ്പം അവരെ നമുക്ക് വളര്ത്തിക്കൊണ്ടു വരണം എന്നുണ്ടെങ്കിൽ അത് വലിയ നഗരങ്ങളിലെ വലിയ സ്കൂളുകാര്ക്കും അതുപോലുള്ള സ്കൂളുകള്ക്കൊക്കെ ആയിരിക്കും അതില് കൂടുതലൊരു പ്രധാന പങ്ക് വഹിക്കാന് കഴിയുന്നത് അതുകൊണ്ട് അത് എന്റെ പ്രദേശത്തെ സ്കൂളുകളെല്ലാം മോശവാണ് എന്നതല്ല ഞാനം പറയുന്നത് ഓരോ എടത്തും ഓരോ കുട്ടിക്കും കിട്ടുന്നെ ഓരോ അറിവും കാര്യങ്ങളും വ്യത്യസ്തമാണ് എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കില്ല അറിവും കാര്യങ്ങളും എല്ലാം കിട്ടുന്നത് പലര് പലരും അല്ലെങ്കില് പല കുട്ടികളും അതിനെ പല രീതീലായിരിക്കും ഉള്ക്കൊള്ളുന്നതും അതിനനുസരിച്ച് വളര്ന്ന് വരുന്നതും